ഞാൻ ഏതെങ്കിലും ലൈബ്രറീ പോയിട്ടുണ്ടോന്നൊക്കെ ചോയിച്ചാണെങ്കിൽ അമ്മളെന്താ പറയുക ഞാനങ്ങനെ പൊതുവെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറികളിലൊന്നും അങ്ങനെ പോവാറില്ല പക്ഷേ ഞാനി കോളേജ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതലായിട്ടും ലൈബ്രറി കേറീട്ടുള്ളതും കുറെ പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളതും അതെപോലെ തന്നെ സ്കൂള് കോളേജ് അങ്ങനെയുള്ള ലൈഫിത്തന്നെയാണ് കൂടുതലായിട്ടും ലൈബ്രറിയൊക്കെ പോയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ എന്താണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ കുറെ മലയാളം ബുക്കുകളാണേലും ഇംഗ്ലീഷ് പുസ്തകങ്ങളാണേലും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ലൈബ്രറികളിലൊന്നും അങ്ങനെ അധികം പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ കോളേജ്ക്ക് വന്നതോടെ ഇവിടത്തെ ലൈബ്രറി കൂടുതലിഷ്ടായപ്പം അങ്ങനെ കുറെ ലൈബ്രറീൽ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലെ പുസ്തകങ്ങളെക്കുറിച്ച് പറയാണെങ്കിൽ പല പല നോവലുകളും കഥകളും കവിതകളും എല്ലാമുണ്ട് നോവലെന്ന് പറയാണെങ്കിൽ തന്നെ കുറെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കുറെ നോവലുകളുണ്ട് എം ടി വാസുദേവൻ്റെ കാലം അതെപോലെ തന്നെ എന്താണ് കുറെ ഉണ്ട് രണ്ടാംമൂഴം അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട് എൻ്റെ അമ്മാന്ന് പറയണത് ഇങ്ങനെ വായിക്കാൻ വളരെ ഇഷ്ട്ടമുള്ള ആളായതോണ്ട് കുറെ നോവലുകളും പുസ്തകങ്ങളും കഥകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലന്നെ ഒരു കുഞ്ഞ് ലൈബ്രറി ഉണ്ട് എന്ന് പറയാം അങ്ങനെ പല പല ഭാഷകളാണങ്കിൽ തന്നെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അങ്ങനുള്ള പല പല ലാംഗ്വേജുള്ള കുറെ പുസ്തകങ്ങളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചെറുപ്പം മുതലെ തന്നെ ഞാൻ കുറെ പുസ്തകങ്ങളിങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്താണ് ഇപ്പം മൊബൈൽ ഫോണൊക്കെ വന്നതിൽ പിന്നെ ഇങ്ങനെ വായനയൊക്കെ കുറവാണ് അപ്പം പണ്ട് കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം വായന ഒരുപാട് കുറവായതിൽ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പം കോളേജിൽ വന്നപ്പോൾ ലൈബ്രറീലും കുറെ പുസ്തകങ്ങളുള്ളോണ്ട് അങ്ങനെ വായന ഞാൻ ഒരു ശീലമാക്കിയിട്ടുണ്ട് അപ്പോൾ ലൈബ്രറി പോകാനിഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ മൊബൈൽ ഫോണ് അങ്ങനെ പുതിയ ടെക്നോളജീസ് വന്നപ്പോൾ അതിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നു പക്ഷേ ലൈബ്രറിലെന്നായാലും ഒഴിവ് സമയങ്ങളിലൊക്കെ പോകണം എന്ന് എനിക്കിങ്ങനെ താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും പോകണംനന്നയാണ് ഇഷ്ടോം